ഇപ്പോൾ നോക്കുവാണെങ്കിൽ എൻ്റെ പ്രദേശത്തെ ക്ലിനിക്കുകൾ ക്ലിനിക്കെന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ക്ലിനിക്കാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകൃതമായ ഒരു ചെറിയൊരു ക്ലിനിക്കാണ് അവിടെ നിൽക്കുന്ന ഡോക്ടർമാർ ഒരു വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് പക്ഷേ കൂടെ നിൽക്കുന്ന നഴ്സുമ്മാരും അതുപോലെ എക്സ്പീരിയൻസ്ഡാണ് പക്ഷേ അവിടെ നിൽക്കുന്ന കുറച്ച് അറ്റൻഡർമാർ അങ്ങനെ ഉള്ളവരെല്ലാം ഒരു വിദ്യാഭ്യാസ അവർക്ക് ഈ ഡോക്ടർമാർക്ക് യോഗ്യത പറ്റിയ യോഗ്യത ഇല്ലാത്തവരാണ് ഒരു കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന പഴയ സിസ്റ്റങ്ങളെയാണ് പക്ഷേ ഡോക്ടർമാരെപ്പളും സി സിസ്റ്റം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളത് അപ്പോൾ അവരെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും പക്ഷെ അറ്റൻഡേഴ്സും ഡോക്ടർ നേഴ്സിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്നവരാരും അപ്ഡേറ്റഡല്ല അവർ അവരുടെ പഴയ കാര്യങ്ങളും വച്ച് അതായത് പഴയ സിസ്റ്റമാണ് അവർ പിന്നെയും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരിത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും സിസ്റ്റം ഡോക്ടർമാർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും ആ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കണം ഒരിക്കലും ഒരു ഓർഡിനറി സിസ്റ്റത്തിലോട്ട് നമ്മൾ ഒരിക്കലും തരം താഴ്ന്ന് പോകരുത് പിന്നെ പോയിട്ട് അടിസ്ഥാന സൗകര്യങ്ങള് വളരെ കുറവാണ് ആശുപത്രിയിൽ ഇപ്പം ഒരു പനി വന്ന് ചിലപ്പം ചില മരുന്നുകൾ കാണത്തില്ല അങ്ങനെ കുറച്ച് മരുന്നിൻ്റെ കുറച്ച് അഭാ അഭാവങ്ങളൊക്കെ ആശുപത്രിയിൽ നേരിടാറുണ്ട് അങ്ങനത്തെ പിന്നെ ഈ അറ്റൻഡർമാരുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് വളരെ നമുക്ക് അറിയാനായിട്ടുണ്ട് കാരണം പല സിറ്റുവേഷനിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചില പേഷ്യൻസിന് ചില കാര്യങ്ങൾ മാറികൊടുക്കുകയും ചില മരുന്നുകൾ മാറികൊടുക്കുകയും പിന്നെ ചില പേഷ്യൻസിനെ കെയർ ചെയ്യാതെ പോവുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറ്റൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ ആ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം കൊണ്ട് തന്നെയാണ് അവർ ഒരിക്കലും അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് അവർക്കിത് നേരിടേണ്ടി വരുന്നത് അതേ നേരം സമ്മതിച്ച് അവർ അപ്ഡേറ്റ് ആവുകയാണ് എങ്കിൽ അവർക്ക് ഇതിനെ നേരിടേണ്ട ഇത് നേരിടാനായിട്ടുള്ള ഒര് കരുത്ത് അവർക്കുണ്ട്